ഗ്രാമത്തിന്ന് പറഞ്ഞിട്ടിണ്ടെങ്കി നമ്മൾ പണ്ട് കണ്ട് വരുന്നതൊരു രീതിന്ന് വച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ നമ്മള് ചെറിയ വീടുകളോ ഒതുങ്ങിയ വീടുകളൊക്കെയാണ് ഒരു വീട്ടിൽ ഇപ്പൊ രണ്ട് ബെഡ്റൂംസ് ആയിരിക്കും ചെലപ്പോ ഒരു ബാത്റൂമൊക്കെ ഇണ്ടാവൊള്ളൂ ചിലപ്പോ ബാത്റൂംസ് ഇല്ലാത്ത വീട്സൊക്കെ ഇണ്ടാവാറിണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെയൊരു രീതിന്ന് പറഞ്ഞിട്ടിണ്ടെങ്ങി എന്നാ ഇന്നത്തെ കാലത്തിക്ക് നമ്മള് നോക്കുവാണെങ്കിൽ ഒരു വീടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി രണ്ട് നില വീട് നമ്മടെ ഗ്രാമത്തില് എവിടാ നോക്കിയാലും രണ്ട് നില വീടായിരിക്കും പിന്നെ ഈ ഒരു നാലഞ്ച് ബെഡ്റൂംസ് എങ്കിലും ഒരു വീട്ടിലുണ്ടാവും ആ ബെഡ്റൂംസിനൊക്കെ അറ്റാച്ചിഡ് ബാത്റൂംസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു കിച്ചൺ അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് ഒരു വീട്ടിലൊരു പൂജാമുറി ഉണ്ടാവാറുണ്ട് അങ്ങനെ പണ്ടത്തെന്ക്കാട്ടിലും ഒരുപാട് മാറ്റൊളൊരു രീതിയാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മള് കണ്ട് വരുന്നത് അതായത് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വീടും ബെഡ്റൂംസും ഒക്കെയാണ് ചിലപ്പോൾ ഒരു ബെഡ്റൂമക്കെ ഒരു വീട്ടിലിണ്ടാവൊള്ളൂ ചിലപ്പോൾ ബാത്റൂംസേ ആ വീട്ടിലിണ്ടാവാറില്ല എന്നാ ഇന്നത്തെ കാലത്തൊക്കെന്ന് പറഞ്ഞിട്ടിണ്ടെങ്കി ഒരു ബാത്റൂമിൻ്റെ അറ്റാച്ചഡ് അല്ല ഒരു വീട്ടില് ഒരു ബെഡ്റൂമിന് ഒരു അറ്റാച്ചിട് ബാത്ത്റൂംസ് ഒണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം വളരെ മാറ്റം ഉള്ളതാണ് അത്പോലെത്തന്നെ ഏതൊരു വീട്ടിലാണെങ്കിലും ഒരു പൂജാമറിയും പൂജാമുറിയും ഉണ്ടാവാറിണ്ട് ആ അങ്ങനെ എന്തുകൊണ്ടും പണ്ടത്തെക്കാലത്തിനേക്കാട്ടും നല്ല മാറ്റം വന്നൊരു രീതിയാണ് ഇന്നത്തെ കാലത്ത് നമ്മള് കണ്ട് വരുന്നത്